ഹലോ ഈ ഗ്രീൻ വാലി ഗ്രീൻ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറീന്റെ ഗൈഡാണോ ആ ഓക്കേ ഇത് ഞങ്ങൾ കോട്ടയത്തുനിന്നാണു വിളിക്കുന്നത് വയനാട്ടിലേക്കൊരു ട്രിപ്പ് വരാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മള് ആറുപേരടങ്ങുന്ന ഒരു ടീമാണ് അപ്പോള് അവിടെ വന്നാല് എന്തൊക്കെ കാണാൻ കഴിയും അവിടുത്തെ ഏകദേശം ഫീസും ടൈമും എപ്പോഴാണ് അതൊക്കെ അറിയാന് വേണ്ടിയാണ് വിളിച്ചത് ഡീറ്റെയിൽസൊന്നു പറയുമോ ഓക്കേ ഏകദേശം എത്ര എമൗണ്ട് വരും നമുക്ക് എത്ര പാക്കേജെങ്ങനെയാണ്

അപ്പോള് സ്റ്റേ ഒക്കെയോ സ്റ്റേ സെപ്പറേറ്റായിരിക്കില്ലേ എന്നാല് നമ്മള്ക്കെന്തായാലും അങ്ങനെ വേണ്ടി വരും കാരണം ഞങ്ങൾ കോട്ടയത്തുനിന്നാണു വരുന്നത് അപ്പോള് നമുക്ക് സ്റ്റേ വേണ്ടിവരും അപ്പോള് അതിനു പറ്റിയ നല്ല ക്യാമ്പ്ഫയറൊക്കെ ഉണ്ടാവുമോ ഓക്കേ ശരി ഓക്കെ അ